ഹലോ അതെ കാർ പ്ലാസാ ഓപ്പ്റേറ്റേഴ്സ് ആൻ്റ് വാഷിങ് ആണ് സാർ ഞങ്ങളിവിടെ കാർ വാഷ് ചെയ്യും സാർ ഇവിടെ കാർ സർവീസ് ചെയ്യും സാർ പിന്നെ ഞങ്ങൾക്ക് കാറിൻ്റെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ അതെല്ലാം ചെയ്തുതരുന്നതാണ് മൂന്ന് കാറോ ഓക്കേ സാർ ഏത് ഏത് ഏത് എസ് യൂ വിയാണ് സാർ ബ്രാൻഡേതാണ്

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എസ് സാർ സർ ഞങ്ങള്ക്ക് സാർ ഞങ്ങൾക്കിവിടെ സാറിൻ്റെ സീവീഡ് വാഷ് ചെയ്യാൻ വേണ്ടി സാർ നമുക്ക് വലിയൊരു മെഷീനുണ്ട് ലൈക്ക് ഇത് ഓട്ടോമാറ്റിക്ക് മെഷിനാണ് അപ്പോള് അതുവഴിയാണ് നമ്മൾ കാർ വാഷ് ചെയ്യുന്നത് പിന്നെ സെഡാനായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനൊരു മെഷിനാണ് പക്ഷേ സെഡാനിന് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ഇപ്പോള് സാറിൻ്റെ വെർട്ടിസ് ആണല്ലോ അപ്പം കുറെക്കൂടെ ടെക്നോളജിക്കൽപരമായ സെറ്റിങ്ങൊക്കെ യൂസ് ചെയ്താണ് ഞങ്ങള് വണ്ടി കഴുകുന്നത് പിന്നെ ഞങ്ങള് മാനുവലായിട്ട് കഴുകാറില്ല അതായത് സ്ക്രാച്ചസൊക്കെ പ്രിവൻ്റ് ചെയ്യാനും പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് വരാതിരിക്കാനും എല്ലാം മെഷിൻ മെഷിൻപരമായിട്ടാണ് എല്ലാം നീങ്ങുന്നത് ഞങ്ങള് പിന്നെ നല്ല ക്വാളിറ്റി സോപ്പും പിന്നെ ബ്രെഷുമൊക്കെയാണ് യൂസ് ചെയ്യുന്നത് സാറിന് ഞങ്ങളുടെ പ്രൈസിങ്ങ് എസ് യു വി ആയതുകൊണ്ട് സാർ നമുക്ക് സാറിനിപ്പോള് രണ്ട് എസ് യു വി അല്ലേ അപ്പം ഒരു എസ് യു വിയിന് സാർ ഞങ്ങളൊരു രണ്ടായിരം രൂപയാണ് ഞങ്ങൾ പ്രൈസ് ചെയ്യുന്നത് അതെ സെഡാനിന് ആയിരം സാറിപ്പം ഇന്ന് ഇന്നത്തെ ഇന്ന് ഇന്ന് വെള്ളി ഇന്ന് വെള്ളിയല്ലേ സാർ ഓക്കെ അപ്പോള് ഇന്ന് സാർ ഞങ്ങൾക്ക് രണ്ട് ഓർഡേഴ്സുണ്ട് അപ്പം നമുക്ക് രണ്ട് വർക്ക് വന്നിട്ടുണ്ട് ഒരു വിത്തിൻ ടു ഡേയ്സ് ഞങ്ങളത് സാറിൻ്റെ കയ്യിൽ എത്തിക്കുന്നതാണ് ആ യെസ് യെസ് സാര് ഇൻറ്റീരിയർ വർക്ക്സ് എന്തെങ്കിലുമുണ്ടെങ്കിൽ അതും ഞങ്ങള് ചെയ്തുതരുന്നതാണ് എക്സ്ട്രാ എക്സ്ട്രായിട്ട് ക്യാഷൊന്നും നമ്മളതിന് ഡിമാൻ്റ് ചെയ്യുന്നില്ല ആ സാർ ഡീറ്റേലിംഗ് ഡീറ്റേലിങ്ങിന് വേറെയാണ് ദിവസമെടുക്കും നാളെ ജസ്റ്റ് ഇൻറ്റീരിയർ ക്ലീനിങ്ങാണ് ചെയ്യുന്നത് അത് ഞങ്ങൾ ഫ്രീ ആ അപ്പം ഡീറ്റേലിങ്ങിന് കുറച്ചുംകൂടെ ഒരു അതായത് മേബി വൺ വീക്ക് വൺ ഓർ ടു വീക്ക്സ് ടൈമെടുക്കും യ്യോ കാരണം സാർ ഞങ്ങൾക്ക് വേറെയൊരുപാട് ആൾക്കാര് വന്ന് വേറെയൊരുപാട് ഓർഡേഴ്സുണ്ട് ഞങ്ങൾക്കത് മാറ്റിവെച്ച് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല സാർ അത് ഞങ്ങളുടെ കമ്പനി ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെനിന്നല്ല ഞങ്ങളുടെ കാർ പ്ലാസയുടെ തന്നെ വേറെയൊരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാനത് സാറിന് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഞാനത് സെൻഡ് ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ സാർ താങ്ക് യൂ